മറ്റു പട്ടണങ്ങളിലെ സ്കൂളുകളില് കുട്ടികളെ ചേർത്തുകഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട രക്ഷിതാക്കള് നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് ഈ യാത്ര എന്നുള്ളത് ഇപ്പോള് അടുത്തുള്ള പട്ടണങ്ങളിലൊക്കെ സ്കൂള് കുട്ടികളില് സ്കൂളില് കുട്ടികളെ ചേർത്തുകഴിഞ്ഞാല് കുട്ടികൾക്കു പോവാന് നടന്നോ അല്ലെങ്കില് സൈക്കിളിലോ അല്ലെങ്കില് മറ്റു ചെറിയ വണ്ടികള് ഉദാഹരണത്തിന് ഓട്ടോ റിക്ഷയിലോ ഒക്കെ പോയിട്ട് സ്കൂളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് വളരെ അത്ര വലിയൊരു സാമ്പത്തികമായ ചെലവും ആ ഒരു രീതിക്ക് ഉണ്ടാവില്ല എന്നാലും മറ്റു പട്ടണങ്ങളിലെ സ്കൂളിലെ കുട്ടികളെ ആക്കിക്കഴിഞ്ഞാല്

യാത്രാച്ചലവ് എന്നുള്ളത് രക്ഷിതാക്കള് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ് ഉദാഹരണത്തിന് ഈ ഓട്ടോ റിക്ഷയിലൊക്കെ വലിയ പട്ടണങ്ങളിലേക്കൊക്കെ പോവുക എന്നുള്ളതു വളരെയധികം സാമ്പത്തികമായ സാമ്പത്തികമായ ബാധ്യത രക്ഷിതാക്കൾക്കു വരുത്തിവയ്ക്കുന്ന ഒരു രീതിയാണ് മറ്റു പട്ടണങ്ങളിലെ സ്കൂളിലേക്ക് കുട്ടികളെ ചേർത്തുകൊണ്ട് അവരെ ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോ റിക്ഷയിലൊക്കെ ഓട്ടോ റിക്ഷയിലോ ഒക്കെ സ്കൂളിലേക്ക് അയക്കുമ്പോള് വളരെയധികം സാമ്പത്തികമായ ചെലവുകള് രക്ഷിതാക്കൾക്കുണ്ടാവുന്നുണ്ട് ഈ അടുത്തുള്ള സ്കൂളുകളില് ചേർക്കുന്നതിനേക്കാൾ വളരെയധികം ഇരട്ടിയിലും അല്ലെങ്കിൽ മൂന്നു മടങ്ങ് അല്ലെങ്കിൽ നാലു മടങ്ങൊക്കെ ചെലവുകള് ഈ രീതി സ്വീകരിച്ചുകഴിഞ്ഞാല് രക്ഷിതാക്കള്ക്ക് ഉണ്ടാകും അതുകൊണ്ടുതന്നെ മറ്റ് അടുത്ത സ്കൂളുകളില് സ്കൂളുകളില്ലെങ്കില് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വളരെ ഒരു ബുദ്ധിമുട്ടു തന്നെയാണ് ഈ യാത്ര എന്നുള്ളൊരു വിഷയം മികച്ച നിലവാരമുള്ള പ്രാഥമിക വിദ്യഭാസം ലഭിക്കാനുള്ളൊരു വളരെ പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി തന്നെയാണു യാത്രാസൗകര്യത്തിൻ്റെ ഒരു ദൗർലഭ്യം ഉദാഹരണത്തിന് അടുത്തുള്ള സ്കൂളുകളില് നിലവാരം കുറവായിക്കഴിഞ്ഞാല് രക്ഷിതാക്കള് ഈ ഒരു യാത്രാച്ചെലവ് ഒഴിവാക്കാൻ വേണ്ടി ഈ നിലവാരം കുറഞ്ഞ സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കാൻ നിർബന്ധിതരാവുകയാണ് അതുകൊണ്ടുതന്നെ അടുത്തു തന്നെ നിലവാരമുള്ള വിദ്യാഭ്യാസം ഒരു ചെറിയ ചുറ്റളവിൽത്തന്നെ നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് വളരെ ഒരു അത്യാവശ്യം തന്നെയാണ് കുട്ടികളുടെ വിഷയത്തിലും രക്ഷിതാക്കളുടെ വിഷയത്തിലും അപ്പോള് ഈ ലോക്കൽ പ്രാദേശികമായ ഭരണകൂടങ്ങളൊക്കെ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വികസന നയമാണ് ഏ ചെറിയ ചുറ്റളവിൽത്തന്നെ പ്രാദേശികമായിത്തന്നെ വളരെ വലിയ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നതും അവയുടെ പുരോഗതിയും വിദ്യാഭ്യാസപരമായ പുരോഗതിയും ഉറപ്പു വരുത്തുക എന്നുള്ളതും ഈ പ്രാദേശികമായ ഭരണകൂടങ്ങള് പ്രത്യേകിച്ച് ഉറപ്പു വരുത്തേണ്ട ഒരു കാര്യമാണ് യാത്രാ സൗകര്യം തന്നെയാണു മറ്റ പട്ടണങ്ങളിലെ സ്കൂളുകളിൽ ചേർത്തുകഴിഞ്ഞാല് രക്ഷിതാക്കള് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി